ബൈക്ക് ഓടിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഹെൽമെറ്റ് ധരിക്കണം ഹെൽമെറ്റ് ധരിച്ചില്ലെങ്കിൽ എന്തെങ്കിലൊരപകടം സംഭവിച്ചാൽ നമുക്ക് കൂടുതൽ ഇഞ്ചുറീസ് ഇഞ്ചുറിയൊക്കെ ഉണ്ടാകാനുള്ള സാദ്ധ്യതയുണ്ട് അപ്പോൾ ഹെൽമെറ്റ് ധരിക്കുകയെന്നുള്ളതൊരു സുരക്ഷാമാർഗ്ഗമാണ് പിന്നെ ലൈസൻസ് ഉണ്ടായിരിക്കണം ബൈക്ക് ഓടിച്ചു പോകാൻ ഉള്ള ആവൊരു കോൺഫിഡൻസ് നമുക്കുണ്ടായിരിക്കണം രേഖകളെന്നു പറയുന്ന നമുക്ക് ലൈസൻസ് കയ്യിൽ വേണം പിന്നെ വണ്ടിയുടെ പേപ്പേഴ്സ് ഇൻഷുറൻസ് പേപ്പറുകളും അങ്ങനെയുള്ള പേപ്പേഴ്സുകളും വണ്ടിയുടെ ആർ സി ബുക്ക് അതുമെല്ലാം എപ്പോഴും വണ്ടിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്